ആ അക്ഷയ സെൻ്ററല്ലേ അതെ ആധാറ് ആ ആധാറ് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഞാനേ പിന്നെ ചെങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത് മ്മ് എന്തൊക്കെ ഡോക്കുമെൻ്റസ് കൊണ്ടുവരണം ആധാറെടുക്കാന് മ്മ് മ്മ് ഒരു മുപ്പത് മ്മ് മതി മ്മ് പൈസ എത്ര രൂപയാവും മുപ്പത് മ്മ് മ്മ് താമസിക്കുകയില്ലല്ലൊ എത്രയും പെട്ടെന്ന് എത്ര മണിക്ക് വരണം അവിടെ മ് പെട്ടെന്ന് എനിക്ക് ശെരിയാക്കി തരണം അർജന്റ് ആണെ മൂന്ന് പേരുടെ ഉണ്ട് മൂന്ന് പേരുടെയും ഉണ്ട് എത്രയും വേഗം ശെരിയാക്കി തരണം മ്മ് ആ ശെരിയാക്കി തരണം മ്മ് മുപ്പത് രൂപ മ് എല്ലാവരുടെയും ഇത് കൊണ്ടുവരണ്ടേ അങ്ങനെ ആ വേറൊന്നും വേണ്ടല്ലോ മ്മ് പിന്നെ എവിടെയാണ് അക്ഷയ സെൻ്ററ് കുരിശുംമൂട് അതെ കുരിശുംമൂട് വന്നിട്ട് എങ്ങോട്ട് വരണം മ്മ് അവിടെയോ മ്മ്

മ്മ് ആ എന്നാൽ എന്ന ശരി ഓക്കേ